ട്രക്കിംഗ് സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഒത്തിരി കുപ്പികളും പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളെല്ലാമുണ്ട് നമ്മളീ കുപ്പി ഇതെല്ലാവരും സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മളീ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്ക്കളും കുപ്പികളും നമ്മൾ തന്നെ സൂക്ഷിച്ച് ഇതെവിടെയാണോ ഇടേണ്ടത് അവിടെ ഇട്ടിരുന്നുവെങ്കിൽ ഇത്രയും മലിനം ആവില്ലായിരുന്നു എങ്കിൽ നമ്മൾ പരിസരം വൃത്തിയായി സൂക്ഷിക്കാമായിരുന്നു പക്ഷേ ആരും അങ്ങനെ ചെയ്യാറില്ല ഇപ്പോൾ നൂറ് പേരുണ്ടെങ്കിൽ രണ്ട് പേർ മിക്കവാറും അത് ചെയ്യുള്ളു ബാക്കി തൊണ്ണൂറ്റെട്ട് പേരും അതിനെ അവിടവിടെ ഉപേക്ഷിക്കയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ പരിസരമൊക്കെ മൊത്തവും ഇത് മാലിന്യം ഇതായി വൃത്തികേടായി കിടക്കുന്നു പിന്നെ നമ്മൾ മാലിന്യഹിതമായി കാണുന്നു അത് എങ്ങനെ പരിസരം വൃത്തിയാച്ചാൽ സ്വയം ഓരോ വ്യക്തിയും ചിന്തിക്കണം നമ്മൾ അത് വൃത്തി നമ്മളോരോരുത്തരും ഇടുന്ന വേസ്റ്റ് നമ്മൾ ത അത് പരമാവധി പ്ലാസ്റ്റിക്കും കുപ്പീം നമ്മൾ തന്നെ അത് സുരക്ഷ എവിടെയാണോ ഇടേണ്ടത് അവിടെ കൊണ്ട് ഇടാൻ നമ്മൾ പരമാവധി ഓരോ വ്യക്തിയും ശ്രമിച്ചാൽ ഇത്രയും മാലിന്യം ഇത് പരിസരം വൃത്തിയായി വൃത്തികേടാവൂലാ പ്ലാസ്റ്റിക് പ്രകൃതിയിലലിഞ്ഞു ചേരാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തന്നെ അത് എടുത്ത് നമ്മൾ തന്നെ അത് സൂക്ഷിച്ച് എവിടെയാണോ അത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് ഇടുക എങ്കിൽ പരിസരം ഇത്രേം വൃത്തികേടാവില്ല പിന്നെ പരിസരം നമ്മൾ ഓരോ വ്യക്തിയിടേം കടമയാണ് അവർ താമസിക്കുന്ന പരിസരവും പൊതുസ്ഥലവായിരുന്നാലും എവിടെയായിരുന്നാലും വൃത്തിയാക്കേണ്ടതും പ്ലാസ്റ്റിക്ക് മാലിന്യങ്ങളും അതെവിടെയാണോ ഇടേണ്ടത് അവിടെ കൊണ്ടിടേണ്ടതും അത് ഓരോ വ്യക്തിയും ഈ താമസിക്കുന്ന സ്ഥലമായിരുന്നാലും ജോലി സ്ഥലം എവിടെ ആയിരുന്നാലും അവരവർ സ്വയം ചിന്തിച്ച് ചെയ്യേണ്ടതാണ് പിന്നെ പരിസരം വൃത്തിയായി കിടന്നാൽ നമുക്ക് പലതരമുള്ള അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാം ഈ പരിസരത്ത് ആണ് വൃത്തിഹീനമായാൽ നമുക്ക് അസുഖങ്ങൾ പലതും വരാം പ്ലാസ്റ്റിക്ക് കൊണ്ടും പ്ലാസ്റ്റിക് തീയിടണത് കൊണ്ടും പ്ലാസ്റ്റിക്ക് ഇതിൽ അലിയേം ഇല്ലാത്തത് കൊണ്ടും പിന്നെ മഴവെള്ളം സമയത്ത് പ്ലാസ്റ്റിക്ക് കിടന്ന് കൊതുകുകൾ മുട്ടയിട്ട് ഡെങ്കിപ്പനീം അതും ഇതും പല രോഗങ്ങളും നമുക്ക് പടരുന്നുണ്ട് ഇതിനെയൊക്കെ പരമാവധി ഓരോ വ്യക്തിയും നമ്മൾ പരിസരം സൂക്ഷിച്ചാൽ പരമാവധി നമുക്ക് തൊണ്ണൂറ് ശതമാനം നമ്മളുടെ അസുഖങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിയും എവിടെപ്പോയാലും ഇപ്പം നമ്മൾ ശകലം സ്ഥലം നടക്കുമ്പോൾ വീണ്ടും കുറച്ച് നടക്കുമ്പോൾ അവിടെ വൃത്തിഹീനമായി കിടക്കുന്നത് കാണാം അടുത്ത ആളത് വൃത്തിയാക്കിയാലെ വേറൊരാൾക്ക് പോകാൻ തന്നേം പറ്റു അത്ര ഇത് മോശമായി പല സ്ഥലങ്ങളും നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക നമ്മളിത് വൃത്തിയാക്കുക നമ്മൾ ഇടുന്ന പ്ലാസ്റ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കും കുപ്പീം നമ്മൾ തന്നെ എവിടെയാണോ ഇടേണ്ടത് അവിടെ ഇടുക